ഇപ്പോൾ കേരളത്തിലെ ആളുകൾ കൂടുതലായിട്ടും അങ്ങനെ പങ്കെടുക്കാനൊക്കേ ആഗ്രഹിക്കുന്നത് കൂടുതലും എന്താ പറയുക മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കു തന്നെയാണ് ആളുകൾ പങ്കെടുക്കാനൊക്കേ ആഗ്രഹിക്കുന്നത് പിന്നേ ഇപ്പോൾ എന്തെങ്കിലും സെലിബ്രേഷൻ അതായത് ഗ്രാമങ്ങളിലൊക്കെയാണെങ്കിൽ കൂടുതലായിട്ടും വരുന്നത് വിഷു ഓണം അങ്ങനത്തെ സെലിബ്രേഷൻ ഒക്കെയാണെങ്കിൽ അവിടത്തേ ക്ലബ്ബുകൾ വഴി ഓരോ പരിപാടികളൊക്കേ കാഴ്ച്ചവെക്കാറുണ്ട് അപ്പോൾ അതിനൊക്കേ ആൾക്കാർ കൂടുതൽ ചിലരൊക്കേ മടിയൊക്കേ വിചാരിച്ച് മാറി നിൽക്കുമെങ്കിലും കുറേ ആൾക്കാരൊക്കേ അതിനകത്ത് പങ്കെടുക്കുന്നതൊക്കേ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നേ എന്താ പറയുക അമ്പലങ്ങളിലും മറ്റ് ഉത്സവങ്ങൾ ഇപ്പോൾ പള്ളിയായിക്കോട്ടെ ക്രിസ്ത്യാനി ക്രിസ്റ്റിയൻസിൻ്റെ പള്ളിയാണെങ്കിൽ അവരുടെ എന്താ പറയുക ഇപ്പോൾ ഉ ഹിന്ദുക്കൾക്കാണെങ്കിൽ താലം മറ്റേ ഹ് മുസ്ലീംസ് ആണെങ്കിൽ അവരുടെ വേറേ പരിപാടികൾ ക്രിസ്ത്യാനികളാണെങ്കിൽ അവരുടെ പ്രദക്ഷിണം അങ്ങനത്തേ പരിപാടികൾക്കൊക്കേ പങ്കെടുക്കാനൊക്കേ ആൾക്കാർക്ക് ഭയങ്കര താത്പര്യമാണ് കാരണം അതൊക്കേ നടന്ന് ആ ഒരു എന്താ പറയുക ഒരു എന്താ പറയാ ഒരു ആചാരമായിട്ടു തന്നെയാണ് അവരൊക്കേ ഇപ്പോഴും മുൻപോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അതൊക്കേ കൂടുതലും നമ്മുടെ സമൂഹത്തിൽ ആൾക്കാരൊക്കേ എന്താ പറയുക പങ്കെടുത്ത് ന നല്ലൊരു ഇഷ്ടത്തോടെത്തന്നേ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്